ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ കോളേജുകളുണ്ട് പറയുമ്പോള് ഡോൺ ബോസ്കോ ഉണ്ട് പവനാത്മ ഉണ്ട് മേരി കുട്ടിക്കാനം കോളേജുണ്ട് ഇങ്ങനെ എടുത്തു പറയാനായിട്ട് പ്രമുഖമായിട്ടുള്ള കുറെ കോളേജുകളുണ്ട് അതില് എല്ലാ കോളേജുകളും തന്നെ മിക്ക ബേസിക്കായിട്ടുള്ള കുറെ കോഴ്സുകളുണ്ട് അതെല്ലാം തന്നെ പ്രൊവൈഡിയ്യുന്നുണ്ട് ഇപ്പോള് പറയുവാണെങ്കില് മേരി കുട്ടിക്കാനം കോളേജില് പറയുവാണെങ്കില് ഇപ്പോള് ഡിഗ്രി കോഴ്സുകള് പി ജി കോഴ്സുകള് പിന്നെയും അങ്ങനെ എല്ലാ കോഴ്സുകളും പ്രൊവൈഡിയ്യുന്നുണ്ട് അതില്തന്നെ ഡിഗ്രി വരുവാണെങ്കില് മലയാളം ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചര് ബി എ മലയാളം ബി എ എക്കണോമിക്സ് പിന്നെ ബി എ മാത്സ് അങ്ങനെ എല്ലാ കോഴ്സുകളും പിന്നെ ബി കോമിലേക്കു വരുവാണെങ്കില് ബി കോം കോഴ്സുകളും അവിടെ ചെയ്യുന്നുണ്ട് ബി കോമിൻ്റെ തന്നെ പല പല ഇതായിട്ട് പിന്നെ ബി സി എ ചെയ്യുന്നുണ്ട് പിന്നെ ബി എസ് ഡബ്ല്യൂ സോഷ്യൽ വർക്കിൻ്റെ തന്നെ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്കെന്നു പറയുന്ന സാധനം ചെയ്യുന്നുണ്ട് പിന്നെ ഇതു കൂടാതെ മാസ്റ്റേർസ് മാസ്റ്റേർസിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മാസ്റ്റേഴ്സിൻ്റെ ഇപ്പോള് സോഷ്യൽ വർക്കിലേക്ക് വരുവാണെങ്കില് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യൂ കോഴ്സെയ്യുന്നുണ്ട് പിന്നെ എം സി എ ഉണ്ട് എല്ലാത്തിനെയും എന്തൊക്കെ ബാച്ചിലർ കോഴ്സുകളുണ്ടോ അതിൻ്റെ എല്ലാം മാസ്റ്റർ കോഴ്സുകളും അവിടെത്തന്നെയുണ്ട് പിന്നെ അതുപോലെതന്നെ ഇപ്പോള് പുതിയതായിട്ടു വരുന്ന കോഴ്സുകള് ടൂറിസം ടൂറിസത്തിനെക്കുറിച്ചുള്ള കോഴ്സുകളുണ്ട് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ മാക്സിൻ്റെ ആണെങ്കിലും ഇക്കണോമിക്സ് എൻജിനീയറിങ്ങിൻ്റെ എല്ലാ എല്ലാ കോഴ്സുകള് ബ്രാഞ്ചസ് എല്ലാ സ്പെഷ്യലൈസേഷൻസ് അങ്ങനെയുണ്ട് ഇപ്പോള് സോഷ്യൽ വർക്കിൻ്റെ തന്നെയാണേലും പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് മെഡിക്കൽ ആന്ഡ് സൈക്കാട്രി ഫാമിലി കൗൺസിലിംഗ് ചൈൽഡ് ആന്ഡ് ഹെൽത്ത് കെയർ പിന്നെ എച്ച് ആര് അങ്ങനെ എല്ലാ കോഴ്സിൻ്റെയും സ്പെഷ്യലൈസേഷൻസും മിക്ക കോഴ്സിൻ്റെയും സ്പെഷ്യലൈസേഷൻസും നമ്മുടെ കോളേജുകളില് ഈ ഉള്ള കോളേജുകളില് ലഭ്യമാണ് പിന്നെ വേറെ വരുന്ന ഒരു വിഷയമെന്നു പറഞ്ഞാല് വിദ്യാർത്ഥികൾക്ക് തുടർപഠനം മിക്കവരും പറയും പുറത്തേക്കു പോവാനായിട്ട് പുറത്തേക്കാണ് ഇപ്പോള് പോവുന്നത് ഇപ്പോള് നമ്മളിവിടെ ഈ നേരത്തെന്നൊക്കെ പറഞ്ഞാല് കോളേജുകളില് അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു നമുക്ക് സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോള് സീറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര സീറ്റ് കിട്ടാൻ ഒരു പാടുമില്ല കാരണം കോളേജുകളിലൊക്കെ പിള്ളേരുടെ എണ്ണം വളരെ കുറവാണ് അവര് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോള്ത്തന്നെ തുടർപഠനത്തിനായിട്ടു പുറത്തേക്കു പോവുകയാണ് ഇവൻ പഠിച്ച് ഈ ഡിഗ്രിയും പി ജിയും ഇവിടെടുത്തിട്ട് വേറെ പഠിക്കാനായിട്ട് കോഴ്സുകൾ പഠിക്കാനായിട്ട് പുറത്തേക്കു പോകുന്നവരുണ്ട് കാനഡയിലേക്കും യൂ കെയിലേക്കും അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലേക്ക് മൂവെയ്ത് അവിടെ തുടർപഠനം ചെയ്ത് അവിടെത്തന്നെ ജോലിയും എടുത്ത് സെറ്റിലാവാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് അപ്പോള് ഇപ്പോള് കുറേ പിള്ളേരും പുറത്തേക്കു പോവുകയാണ് എന്നു പറഞ്ഞാല് ഇപ്പോള് പുറത്തോട്ടൊക്കെ പോകണമെന്നുപറഞ്ഞാല് ചിലപ്പോള് നമ്മളിപ്പോള് എം എസ് ഡബ്ല്യൂ ആണ് എടുത്തിരിക്കുന്നതെങ്കില് അവിടെ അത് റിലേറ്റഡായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടോ എന്ന് ഏജൻസിയില് വിളിച്ച്ന്വേഷിച്ച് ഇപ്പോള് എന്തു തരത്തിലുള്ള കോഴ്സാണ് ചിലപ്പോള് ഒരു ബന്ധവുമില്ലാത്ത കോഴ്സുകളൊക്കെയായിരിക്കും അവര് പുറത്തേക്കു പോകുന്നത് അപ്പോള് ഇപ്പോള് ചിലപ്പോള് ഇന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതേലും ഒരു ബന്ധപ്പെട്ട കോഴ്സ് അവര് പുറത്തു പോയി ചിലപ്പോള് ഡിപ്ലോമ ആയിട്ടായിരിക്കും ചിലപ്പോള് വൺ ഇയർ കോഴ്സായിരിക്കും അങ്ങനെ പുറത്തു പോയി എടുത്തിട്ട് പിന്ന അവിടെ തന്നെ ജോലിക്ക് സാധ്യതകൾക്കുവേണ്ടി തപ്പും നമ്മുടെ ഇവിടുത്തെ പഠനംകൊണ്ട് അവിടെപ്പോയി ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവരത് അംഗീകരിക്കത്തില്ല അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഇവിടെ പഠിച്ചുകഴിയുമ്പോഴത്തേക്കും അവിടെ ചെന്ന് നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു ഇക്വലൻ്റ് കോഴ്സോ അല്ലെങ്കിൽ വെറെന്തേലും നമ്മള് ജോലിയ്യാൻ ആഗ്രഹിക്കുന്ന ഫീൽഡുവായിട്ട് ബന്ധപ്പെട്ട കോഴ്സോ നമ്മളെടുത്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഇപ്പോള് നമുക്കിപ്പോള് ഇപ്പോഴത്തേതെന്നു പറഞ്ഞാല് ഞാൻ പറഞ്ഞതുപോലെതന്നെ ഇപ്പോള് കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത് വളരെ കുറവാണ് ഇപ്പോള് പ്ലസ് ടു നേരത്തെയെന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ഡിഗ്രിയും പി ജിയൊക്കെ പഠിച്ചുകഴിഞ്ഞ് പോവാമായിരുന്നു പക്ഷേ ഇപ്പോള് പിള്ളേര് പ്ലസ് ടു കഴിയുമ്പോള് പോവാണ് അവർക്കു മനസ്സിലായി ഇവിടെ നിന്നിട്ട് പുറത്തേക്കു പോകാനാണെങ്കിൽ പി ജിയും ഡിഗ്രി ഒന്നും ഇവിടെ എടുത്തിട്ട് കാര്യമില്ല നേരത്തെ തന്നെ പുറത്തേക്കു പോയി പുറത്തേക്കു പോയി പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പുറത്തേക്കു പോയി കോഴ്സ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നാണു നല്ലതെന്നു പിള്ളേർക്കു മനസ്സിലായി അതുകൊണ്ടുതന്നെ തുടർപഠനത്തിനായിട്ട് പുറത്തേക്കു പോകുന്നവരാണെങ്കില്പ്പിന്നെ ഇവിടെ കോഴ്സുകള് ഒത്തിരി ഉണ്ടെങ്കിലും എനിക്കു തോന്നുന്നു വെറൈറ്റി കോഴ്സുകള് കുറവാണ് പുറത്തെന്നൊക്കെ പറഞ്ഞാല് യൂറോപ്യൻ കൺട്രീസിലൊക്കെയെന്നു പറഞ്ഞാല് ഇഷ്ടംപോലെ വെറൈറ്റി കോഴ്സുകള് ഒരു ഇപ്പോള് നമ്മളിപ്പോള് എന്തേലും സോ ഹെൽത്ത് കെയറായിട്ടോ അല്ലെങ്കില് കമ്പ്യൂട്ടർ ബേയ്സ്ഡാണേലോ എഞ്ചിനീയറിങ് ബേയ്സ്ഡാണേലോ ഒത്തിരി വെറൈറ്റി കോഴ്സുകള് ഒത്തിരി ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് അവർക്കവിടെ ഉണ്ട് പക്ഷേ ഇവിടെ എന്നു പറഞ്ഞാല് നമുക്ക് തുച്ഛമായ ഒന്നുരണ്ട് നമ്മള് എപ്പോഴും കേട്ടുപരിചയമുള്ള കുറച്ച് കോഴ്സുകള് മാത്രമേ നമ്മള് ഇവിടെ കേരളത്തിലോ അല്ലെങ്കില് നമ്മളിവിടെ പ്രൊവൈഡിയ്യുന്നുള്ളൂ പക്ഷേ അതിലൊത്തിരി വെറൈറ്റി കോഴ്സുകള് പുറത്ത് പ്രൊവൈഡിയ്യുന്നുള്ളതുകൊണ്ടുതന്നെ പിള്ളേർക്കു തുടർപഠനത്തിനായിട്ട് പുറത്തു പോയി ചെയ്യുന്നതാണ് പതിവ് അപ്പോള് ഇപ്പോള് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി കൂടെ കോഴ്സുകള് ലഭ്യമായ കോഴ്സുകളുണ്ട് പക്ഷേ എന്നാലും നമ്മള് ഒരു സിസ്റ്റം മാറേണ്ട സമയാമായെന്ന് എനിക്കു തോന്നുന്നു ഇവിടെ ജോലി കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള പഠനങ്ങള് കുറവാണ് എന്നുള്ളതാണ് എനിക്കു തോന്നുന്നത് ഇപ്പോഴും പഠിത്തമൊക്കെ ഉണ്ട് ഒത്തിരി പഠനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ജോലിയില്ല അപ്പോള് ജോലികൾക്കുള്ള പഠിത്തം പഠിത്തമില്ലിവിടെ പക്ഷേ പുറത്തെന്നു പറഞ്ഞാല് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കാണ് അവിടെ പല രീതിയിലുള്ള കോഴ്സുകള് അതിനനുസരിച്ചുള്ള പഠിത്തങ്ങള് അതിനനുസരിച്ചുള്ള ജോലികള് എല്ലാം അവർക്കവിടെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് പോവുന്നത് അതുകൊണ്ടു തന്നെയാണ് അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ സാലറി പെയ്മെൻറ്റ് അതെല്ലാം കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും പുറത്തേക്കു പോകാനായിട്ടാണ് ഇഷ്ടം ഇവിടെനിന്നു പഠിച്ചു സമയം കളയാനായിട്ട് ആരും തന്നെ താല്പര്യപ്പെടുന്നില്ല അപ്പോള് കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ ബെറ്ററാവും കുറച്ചുകൂടെ ലൈഫ് സെറ്റിലാവും കുറച്ചുകൂടെ എന്താണ് സാലറി പാക്കേജ് ആണേലും ഭദ്രത ഫിനാൻഷ്യലി അവര് സ്റ്റേബിളാവും അപ്പോള് ഈ കാര്യങ്ങൾക്കെല്ലാം നോക്കി ഇവൻ തോ ഇവിടെയുള്ള കോഴ്സുകളാണേലും പിള്ളാര് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോള്ത്തന്നെ ഈ ചിലപ്പോള് ഡിഗ്രി എടുത്ത് ഡിഗ്രി ഒരു ബേസിക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്ത് പിന്നെ ബാക്കി പി ജി കോഴ്സ് പുറത്തുപോയി ചെയ്ത് പഠിക്കുന്നവരുണ്ട് അപ്പോള് അങ്ങനത്തെയാണ് ഇപ്പോള് കൂടുതലും ഒത്തിരി മൈഗ്രേഷനാണ് നമുക്കിവിടെ കാണുന്നത് കോഴ്സുകളൊക്കെ സാധാ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും ഒരു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്തിട്ട് ബാക്കി പുറത്തു പോയി പഠിക്കുന്നവരാണ് നമുക്കിവിടെ കേരളത്തിലുള്ളത്